പണ്ട് എൻ്റെ കുട്ടികാലത്തൊക്കെ ഹാൻഡ് പമ്പുകൾ റോഡരികിലൊക്കെ ഒരു നിത്യകാഴ്ച്ചയാണ് റോഡരികിലെ ആൾക്കാർ ഒരുപാട് ജനങ്ങൾക്ക് അതിൻ്റെ മുമ്പിൽ വെള്ളം എടുക്കാനും കൊണ്ട് ക്യു നിൽക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ബസ്സുകളിലൊക്കെ യാത്ര ചെയ്യുമ്പോഴാണ് ഈ ഒരു കാഴ്ച്ച ഞാൻ കണ്ടിട്ടുള്ളത് ഹാൻഡ് പമ്പുകളെ ഒരുപാട് നേരം പമ്പ് ചെയ്ത് വെള്ളമെടുത്ത് ആൾക്കാർ അവരവരുടെ വീടുകളിലേക്ക് പോകുന്നതും അതിനകത്ത് അവരുടെ വീട്ടിലുള്ള ആവശ്യങ്ങൾ നിറവേറ്റുന്നതും അന്നത്തെ ഒരു കാഴ്ച്ചയായ നിത്യസംഭവമായിരുന്നു അന്ന് എല്ലാ വീടുകളിലും കിണറുകളോ പമ്പ് ഇന്നത്തെ കണക്കുള്ള സൗകര്യങ്ങളോ ഒന്നുമില്ല എല്ലാവരും ആശ്രയിക്കുന്നത് ഇങ്ങനെ പൊതു ജലസേചനങ്ങളെ ആയിരിക്കും പൊതുജനസേചനകളെന്ന് പറയുമ്പോൾ പൊതുവായിട്ടുള്ള കുഴൽക്കിണറുകൾ കുഴൽക്കിണറുകളിൽ വയ്ക്കുന്ന ഈ ഹാൻഡ് പമ്പുകൾ ഈ ഹാൻഡ് പമ്പുകളിൽ ഒരുപാട് നേരം പമ്പ് ചെയ്ത് പമ്പ് ചെയ്ത് അവർ വെള്ളമെടുക്കണം അത് ഒരുപാട് ആൾക്കാർ അതിന്റെ മുൻപിൽ ക്യുവാണ് അങ്ങനെ ക്യു നിന്ന് നിന്ന് നിന്നാണ് അവർ വെള്ളമെടുത്ത് അവരുടെ വീട്ടിലുള്ള ആവശ്യങ്ങളൊക്കെ സാധിക്കുന്നത് അത് ഒരിക്കലും ഞാൻ എൻ്റെതായ എൻ്റെ വ്യക്തിപരമായ എൻ്റെ അനുഭവത്തിൽ ഞാനിതുവരെ ഒരു ഹാൻഡ് പമ്പ് ഉപയോഗിച്ചിട്ടുള്ളതായി എനിക്കൊരു ഓർമ്മയില്ല ഹാൻഡ് പമ്പുകൾ ഉപയോഗിച്ചിട്ടുള്ള ആൾക്കാരുടെ പ്രായത്തിലത് വളരെ ഏറെ ശക്തിയും ഒരു കായിക ക്ഷമത വേണ്ടുന്ന ഒരു അധ്വാനമാണത് അത് അപ്പം നന്നായിട്ട് പമ്പ് ചെയ്താൽ മാത്രമേ അതിൽനിന്ന് വെള്ളം വരത്തുള്ളൂ അതും ചിലപ്പോഴൊക്കെ ആണെങ്കിൽ അതുതന്നെ അതിൻ്റെ വാൾവൊക്കെ കേടായിട്ട് തനിയെ വെള്ളം പോകുന്ന ഒരു കാഴ്ച്ചയുണ്ട് അതിങ്ങനെ ഒരുപാട് വെള്ളം ചീറ്റി റോഡിലോട്ടൊക്കെ ഇങ്ങനെ ഒഴുകി ഒരു പുഴയ്ക്ക് സമാനമായ രീതിയിലിങ്ങനെ വെള്ളം ഒരുപാട് പാഴിപ്പോകുന്ന ഒരു ഇത് കാണാനുണ്ട് കുട്ടികളൊക്കെ അതിന് ചുറ്റും കിടന്ന് കളിക്കുന്നതൊക്കെ ഒരു കാഴ്ച്ച ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട് അങ്ങനെ പറയുകയാണെങ്കിൽ ഈ ഹാൻഡ് പമ്പുകൾ അന്നത്തെ ഒരു ജനങ്ങളുടെ ഒരു അത്യാവിശ്യ ജലസ്രോതസ്സായിരുന്നു ഇന്ന് പക്ഷെ അതിൽനിന്നൊക്കെ ഒത്തിരി ഒരുപാട് വ്യത്യാസപ്പെട്ടിന്ന് പിന്നെ എല്ലാവരുടെയും വീട്ടുമുറ്റത്ത് കിണറുകളും പമ്പൊക്കെ കുഴൽക്കിണറുകളും എല്ലാം അവരവരുടെ വീടുകളിൽ ടാപ്പും എല്ലാ സജീകരണങ്ങളോടുകൂടി എല്ലാവർക്കും അവരവരുടേതായ രീതിയിൽ ജീവിക്കാൻ പറ്റുന്ന ഈ കാലത്ത് പണ്ടത്തെ ഹാൻഡ് പമ്പുകളൊക്കെ ഇന്ന് വളരെ അന്ന് അങ്ങനെ ഹാൻഡ് പമ്പുകളൊന്നും കാണാനേ ഇല്ല പല ജലജീവ മിഷൻ്റെ പമ്പുകളാണ് കൂടുതലും കാണാനുള്ളത് ഹാൻഡ് പമ്പുകളിൽ കൂടി വേനൽകാലത്ത് അപൂർവ്വമായിട്ടെ വെള്ളം പോലും കിട്ടാറുള്ളു അത് കാറ്റായിരിക്കും എപ്പോഴും അതിൻ്റെ അടുത്തുകൂടെ പോവുമ്പോൾ ഒരു എയറ് പോകുന്ന ഒരു ശബ്ദം കേൾക്കാനും പറ്റുന്നുണ്ട് അപ്പോൾ വേനൽകാലത്ത് അതിൽ നിന്ന് വെള്ളം കിട്ടാനുള്ള ഒരു സാധ്യത തീരെ കുറവാണ് ഹാൻഡ് പമ്പുകളുപയോഗിച്ച് പിന്നെ എല്ലാ വീടുകളിലും അന്നത്തെ നിത്യ സംഭവം നിത്യ ഉപയോഗത്തിനുള്ള വെള്ളം ശേഖരിച്ചിരുന്നത് ഹാൻഡ് പമ്പുകളിലാണ് സ്ത്രീകൾ സ്ത്രീകളാണ് കൂടുതലും ഇതിൽനിന്ന് വെള്ളം ശേഖരിച്ച് അവരവരുടെ വീടുകളിൽ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിച്ചിരുന്നത് കുട്ടികൾ കുളിക്കാനും കളിക്കാനുമൊക്കെ ഇതിന്റെ ചുറ്റും കൂടിനിൽക്കുന്നതും അത് ഉപയോഗിക്കുന്നതൊക്കെ കാണുന്നതൊരു രസകരമായൊരു കാഴ്ച്ച കൂടിയാണ് ഇന്നത്തെ കാലത്ത് ആ കാഴ്ച്ചയില്ല ഒരു ഹാൻഡ് പമ്പുകൾ ഇന്ന് ഇല്ല അങ്ങനെ വളരെ ഉപയോഗം വളരെ പ്രചാരത്തിലുള്ളൊരു സംഭവമല്ല ഇന്നത്തെ ഈ ഹാൻഡ് പമ്പെന്ന് പറയുന്നത് അന്ന് ഹാൻഡ് പമ്പുകളൊക്കെ ഉപയോഗിക്കുമ്പോൾ വളരെ ഏറെ അധ്വാനശേഷി വേണം കാര്യം എന്നു വെച്ചാൽ അത് പിടിച്ച് നന്നായിട്ട് മുകളിലോട്ടും താഴോട്ടും പ്രെസ്സ് ചെയ്താൽ മാത്രമേ അതിൽനിന്ന് വെള്ളം വരത്തുള്ളൂ